വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ടാക്സി ബുക്കിയ്തത് എന്നാൽ തന്നെയും പറഞ്ഞ സമയത്തിൽ നിന്നും കുറച്ചു ലേറ്റ് ആയിട്ടാണ് കാറെത്തിയത് കാര് എത്തിയത് എത്തിയിട്ടു തന്നെയും അത് വളരെ ഒരു മോശം അനുഭവമായിരുന്നു ഉണ്ടായത് അത് കാറിൻ്റെ ഡ്രൈവർക്ക് വളരെയധികം ദേഷ്യം ആയിരുന്നു എന്തു പറഞ്ഞാലും അദ്ദേഹം എപ്പോഴും ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരനായിരുന്നു കാറാണെങ്കിൽ കാറിൻ്റെ ഹോൺ ശരിയായി പ്രവർത്തിക്കുന്നേയില്ലായിരുന്നു ഹോൺ വർക്കിയുന്നില്ലായിരുന്നു സീറ്റ് ഒന്നും തന്നെ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു സീറ്റിന്ന് കംഫോർട്ടബളായി ഇരിക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു എപ്പോഴും ഇങ്ങനെ കുതിച്ചുചാടുന്ന ഒരു കാർ ആയിട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത് ഉദാഹരണത്തിന് കാറിൻ്റെ സീറ്റുകള് കീറി പോയിട്ടുണ്ടായിരുന്നു ചില ബാക്ക് സീറ്റിൽ ആണ് ഞാനിരുന്നത് അപ്പോൾ അവിടുത്തെ സീറ്റ് പിന്നി ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് പുറത്ത് എന്തോ കുത്ത് കയറുന്ന പോലെയായിരുന്നു അത് ഉണ്ടായിരുന്നത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോള് കാര് ഇങ്ങനെന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കാറല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു നിസ്സംഗ ഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോള് ഇങ്ങനത്തെ കാറെ കിട്ടത്തുള്ളൂ ലഭ്യമാകുന്നുള്ളൂ പുതിയത് കാര് കൊണ്ടുവരാൻ ഇപ്പോള് അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ പകുതി വഴിയിലെത്തിയപ്പോൾ കാര് റോഡിൽ പഞ്ചറാവുകയുണ്ടായി പിന്നീട് വർഷോപ്പിന് ആള് വന്ന് അതു ശരിയാക്കിയിട്ടാണ് എനിക്കു യാത്ര തുടരാൻ കഴിഞ്ഞത് വളരെ മോശം ഒരു അനുഭവം ആയിരുന്നു ഇങ്ങനെ ബുക്ക് ചെയ്തപ്പോള് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടും വേഗത്തിൽ എത്താൻ പറ്റും എന്ന് കരുതിയാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ വന്നത് ഇങ്ങനെയൊരു വണ്ടിയും ഒരു ഡ്രൈവറും ആയിരുന്നു ഒരു വളരെ ബാഡ് എക്സ്പീരിയൻസായിരുന്നു